ഹെലോ എന്തായിരുന്നു ആണ് അതെ അതെ ഓക്കേ ഓക്കേ അപ്പോള് മെയിനായിട്ട് പറയുകയാണെങ്കില് ഞങ്ങള് മെയിനായിട്ട് ഹാൻഡില് ചെയ്യുന്നത് ഡെക്കറേഷൻസ് ഞങ്ങള് തന്നെയാണ് ഹാൻഡില് ചെയ്യുന്നത് ബാക്കി ഫുഡൊക്കെയാണെങ്കില് പുറത്തുനിന്ന് ഒരു കേറ്ററിങ്ങിനെ വിളിച്ചിട്ട് കേറ്ററിംഗുകാരെ വിളിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ റെപ്യൂട്ടടായിട്ടുള്ള കേറ്ററിംഗുകാരാണ് അപ്പോള് അതോർത്ത് വലിയ സീനൊന്നും ഉണ്ടാകില്ല നിങ്ങള് എവിടെയാണ് വീട് വരുന്നത് ഓക്കേ വീട് സോറി വീട് എവിടെയായിട്ടായിരുന്നു കുട്ടിക്കാനമാണല്ലേ ഓക്കേ അപ്പോള് വലിയ വിഷയമല്ല ട്രാൻസ്പോർട്ടേഷന് വിഷയമുണ്ടാകില്ല ഓക്കേ വീട്ടിലെന്താണ് പരിപാടി ഓക്കേ ഇതിനൊക്കെ എന്തെങ്കിലും ഞങ്ങള് അതിൻ്റെ അറേജ്മെൻറ്റ്സ് എന്തെങ്കിലും സെപ്രേറ്റായിട്ട് എന്തെങ്കിലും വേറെ അറേഞ്ച്മെൻസുണ്ടോ അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇപ്പോള് നിങ്ങള് ഏകദേശം അതിൻ്റെയൊരു സ്കെയിലെത്രയാണ് നിങ്ങള് ലാർജ് സ്കെയിലാണോ അതോ ഒരു സ്മോൾ സ്കെയിൽ മീഡിയം സ്കെയിൽ എന്താണ് നിങ്ങളുദ്ദേശിക്കുന്നത് സ്മോൾ സ്കെയിലാണ് അപ്പോള് ബഡ്ജെറ്റ് എത്രയായിരിക്കും ഞങ്ങളിപ്പോള് പറയുകയാണെങ്കിൽ നമ്മുടെ സ്മോൾ സ്കെയിലെന്നൊക്കെ പറയുമ്പോള് ഒരു ഒരു ലക്ഷത്തിന് അത്രയൊക്കെ ഒതുക്കിയങ്ങ് പോകാം അതൊക്കെ ആവശ്യങ്ങളനുസരിച്ച് അതൊക്കെ ഫ്ളക്ച്ചുവെറ്റ് ചെയ്യും പിന്നെ ലാർജൊക്കെ പറയുകയാണെങ്കില് ഞങ്ങള് മാക്സിമം ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിൻറ്റെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഓക്കെ പള്ളിയില് ഓ പള്ളിയില് ഇവെൻറ്റുണ്ട് അത് എന്നത്തേക്കായിരിക്കും ആ എന്നത്തേക്കായിരിക്കും അത് ഓ ട്വൻറ്റി അപ്പോള് ഓക്കേ അപ്പോഴൊരു പന്ത്രണ്ട് പതിനൊന്ന് ദിവസമുണ്ടല്ലോ അല്ലേ ഓക്കേ അപ്പോള് അത് കുഴപ്പമില്ല അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോള് ഫുഡൊക്കെ എന്ത് കൂട്ടം ഫുഡാണ് ഉദ്ദേശിക്കുന്നത് ഓക്കേ എന്നാല് ലിസ്റ്റൊക്കെ ഞങ്ങള് വാട്സ്ആപ്പിൽ അയച്ചുകൊള്ളാം എന്തൊക്കെയാണ് അവൈലബിളായിട്ടുള്ളത് എന്തെങ്കിലും സെപ്പറേറ്റായിട്ട് ലിസ്റ്റില് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സാധനമുണ്ടെങ്കില് നിങ്ങള്ക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഒപ്പീനിയനായിട്ട് പറയാം കുഴപ്പമൊന്നുമില്ല നമ്മുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ വേറെയെന്തെങ്കിലുമുണ്ടോ ഫുഡൊക്കെ ഫുഡിന് ഫുഡിന് വിഷയമൊന്നും ഉണ്ടാകില്ല ഞങ്ങള് ഡെക്കറേഷൻസ് നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും അതോർത്ത് വലിയ വിഷയമൊന്നും ഉണ്ടാകില്ല ഫുഡൊക്കെയാണെങ്കില് എന്താണ് പുറത്തുനിന്നാണ് ഞാൻ കൊണ്ടുവരുന്നതെങ്കില്പ്പോലും ഇത് എല്ലാം ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങള് പിന്നെ ഇതെല്ലാം ഫോർവേഡ് ചെയ്തുവിടുന്നത് അതോർത്ത് വിഷയമൊന്നും ഉണ്ടാകില്ല ഓക്കേ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങള് വേണ്ടതെന്നുവെച്ചാല് നിങ്ങളെനിക്ക് വാട്സാപ്പില് എനിക്ക് അയച്ചുതന്നാല് ഞങ്ങള് അതനുസരിച്ച് ചെയ്തുകൊള്ളാം പിന്നെ ഇപ്പോഴൊരു അഗ്രിമെൻറ്റായി ഞങ്ങളാണെങ്കില് ഓഫീസില് വന്ന് ജസ്റ്റോന്നു ചെയ്യേണ്ടിവരുമായിരിക്കും ആ അതിൻ്റെ കൂടെയെ ആവശ്യമുണ്ടാവുകയുള്ളൂ അല്ലാതെ വേറെയൊന്നുമില്ല ഓക്കേ അപ്പോള് താങ്ക് യൂ ഫോർ കോളിങ് ഓക്കേ താങ്ക് യൂ ഓക്കേ